ഹലോ ആരായിരുന്നു അതെ എത്ര ദിവസമായി തുടങ്ങിയിട്ട് ആണോ പിന്നെ എങ്ങനെയാണ് എന്തെങ്കിലും മഴ നനഞ്ഞിരുന്നോ അതോ പച്ചവെള്ളം അങ്ങനെ എന്തെങ്കിലും കുടിച്ചോ ആണോ നിങ്ങൾക്ക് അലർജി അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ

ആ അങ്ങനെ ഉണ്ടല്ലെ ചിലപ്പം അലർജീൻ്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും പിന്നെ മഴ നനഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇത് വരാനുള്ളൊരു സാധ്യത ഇല്ല നമ്മൾ മര്യാദയ്ക്ക് തല ഒക്കെ തോർത്തിയാൽ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചവെള്ളം ആണോ കുടിക്കുക ആ ഇനി ഇപ്പം മഴക്കാലം ഒക്കെ അല്ലേ പച്ചവെള്ളം മാക്സിമം മഴക്കാലം ഒക്കെയല്ലേ അപ്പോൾ പച്ചവെള്ളം മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം തിളപ്പിച്ച് ആറിയ വെള്ളം അത് കുടിക്കുക അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തലേ ദിവസം അമ്മേനോട് എങ്ങാനും തിളപ്പിച്ച് വയ്ക്കാൻ പറഞ്ഞിട്ട് പച്ചവെള്ളം പിറ്റേ ദിവസം ആവുമ്പോൾ തണുക്കുമല്ലോ അങ്ങന കുടിക്കുന്നത് ആയിരിക്കും ഏറ്റവും നല്ലത് അങ്ങനെ എന്തെങ്കിലും ചെയ്യുക പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പാരസെറ്റാമോൾ എന്തെങ്കിലും കഴിച്ചിരുന്നോ

പനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പനി മേല് വേദന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ആ പനി ഉണ്ടല്ലേ അപ്പോൾ പാരസെറ്റാമോൾ ഒരു മൂന്ന് നേരം കഴിച്ചാൽ തന്നെ നമുക്ക് ഏകദേശം എല്ലാ അസുഖങ്ങളും മാറും ഇപ്പം നിങ്ങളിപ്പം നേരിട്ട് വരുവാണെങ്കിൽ നമ്മൾ തന്നെയാണ് എഴുതി തരുക പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പനി ഒക്കെ ആണെങ്കിൽ ചിലപ്പം ബ്ലഡിൽ അലർജിയോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലായിരിക്കും ഭയങ്കര പനി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുക അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെന്ത് ചെയ്യുക ഒരു രണ്ട് രണ്ട് ദിവസം കറക്റ്റ് ആയിട്ട് അതായത് മൂന്ന് നേരം കഴിക്കുക ടാബ്ലെറ്റ് മൂന്ന് നേരം കറക്റ്റ് ആയിട്ട് കഴിക്കുക പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക അതായത് ടാബ്ലെറ്റ് കുടിക്കുന്നതിന് മുന്നെ അതായത് പാരസെറ്റാമോൾ കു കഴിക്കുന്നതിന് മുന്നെ നല്ലവണ്ണം ഭക്ഷണം കഴിച്ചിട്ട് മാത്രമേ ഉ കഴിക്കാൻ പാടുള്ളൂ കാരണം അത് നമുക്ക് ഇത് ഭയങ്കര ഡോസ് ഉള്ള നിങ്ങൾക്കറിയാമല്ലോ ഇതൊക്കെ നല്ല എഫക്റ്റ് ഉള്ള നമുക്ക് ഇത് ശരീരത്തിനൊക്കെ അത്ര നല്ലതല്ല പാരസെറ്റാമോൾ അപ്പം നമ്മൾ നല്ലവണ്ണം ഭക്ഷണം ഒക്കെ കഴിച്ചിട്ട് മാത്രമേ കഴിക്കാവുള്ളൂ പിന്നെ എന്തെങ്കിലും കുറവില്ലെങ്കിൽ എന്ത് ചെയ്യുക പിന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അതായത് രണ്ട് ദിവസം കുടിച്ച് നോക്കിയിട്ട് അതൊന്ന് മൂന്ന് നേരം കറക്റ്റ് കു കഴിച്ചിട്ട് ഒട്ടും കുറവ് ഇല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഒന്ന് നേരിട്ട് വന്ന് ഒന്ന് പിന്നെ കാണിക്കേണ്ടതാണ് കേട്ടോ ആ അങ്ങനെയാണെങ്കിൽ കുറവ് ഒന്നും ഇല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ തിങ്കൾ തൊട്ട് വെള്ളി വരെ ഉണ്ടാവും ഈവനിംഗ് ആണ് നാല് മണിക്ക് ഉ ഇപ്പം ബുക്ക് ചെയ്തിട്ട് പിന്നെ വന്നാൽ മതി ആ ഓക്കെ